നവജാത ശിശുക്കൾ ഉണ്ടെങ്കിലും നവജാത ശിശുക്കൾ ഇല്ലെങ്കിലും നമ്മുടെ വീടെപ്പോഴും നമ്മൾ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം അത് ഇപ്പോൾ നവജാത ശിശുക്കളുള്ള സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുട്ടികളുടെ എന്നു വെച്ചാൽ കുഞ്ഞുങ്ങളുടെ തുണികൾ തുണികൾ ഏറ്റവും നമ്മൾ വൃത്തിയായിട്ട് വെക്കുന്നത് അവർക്ക് ഉപയോഗിക്കുന്ന തുണികൾ കാര്യങ്ങളാണ് അപ്പം അവരുടെ ഉടുപ്പുകളാണെങ്കിലും അതുപോലെ അവർക്ക് വിരിക്കുന്ന തുണികളാണെങ്കിലും എപ്പോഴും നല്ല വൃത്തിയിൽ കഴുകി ഡെറ്റോളിലോ നല്ല വൃത്തി മുക്കി ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒരു ഇളം ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചു വെക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതുപോലെ അവർ കിടക്കുന്ന ആ ഒരു കട്ടിലും ബെഡ്ഡും എപ്പോഴും പൊടി തട്ടി നനവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണക്കി എടുത്ത് സൂക്ഷിച്ച് ഒരിക്കലും ഒരു ഒരു അസുഖം ഒരിക്കലും ഒരു ഒരു രോഗാണു ഒരിക്കലും നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കുഞ്ഞിലേക്ക് വരരുതെന്ന് വരാതിരിക്കാൻ ശ്രദ്ധിച്ച് കൊണ്ടുവേണം ശരിക്കും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വൃത്തിയാക്കലുകളൊക്കെ ചെയ്യാൻ നമ്മളിപ്പം കർട്ടൻ ജനൽ ജനൽ നല്ല വൃത്തിയാക്കി കഴുകി തുടച്ച് കർട്ടൻ മാറ്റി അതുപോലെ ചവിട്ടിയൊക്കെ നല്ല വൃത്തിയാക്കി അലക്കി അതൊക്കെ എടുത്ത് മാറ്റി അലക്കിയതെടുത്ത് വെക്കുക വിരിക്കുക അതുപോലെ തുടക്കുക നിലമൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ച് അതൊക്കെ ഡെറ്റോൾ ഉപയോഗിച്ചു തന്നെ തുടച്ച് വൃത്തിയാക്കി അതുപോലെ ഉപയോഗിക്കുന്ന കുഞ്ഞിനുവേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എന്ത് സാധനാണ് ആണെങ്കിലും ഇപ്പം ഒരു പാല് കൊടുക്കാൻ വേണ്ടി ഒരു ഒരു കുപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുപ്പി നല്ല ചൂടുവെള്ളത്തിൽ കഴുകി പറ്റുകയാണെങ്കിൽ അതൊന്ന് ഉണക്കി എടുത്തു കൂടി വേണം കുഞ്ഞിനുവേണ്ടി ഒരു പാൽ കൊടുക്കാൻ അങ്ങനെ കുഞ്ഞിന് കുഞ്ഞെപ്പോഴും കുഞ്ഞിനൊരു അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതേപോലെ വൃത്തിയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി നമ്മളിപ്പം ഒരു ദിവസം ഡ്രൈ ഡേ ആചരിക്കുക എന്നു വെച്ചാൽ നമുക്കിപ്പം നനഞ്ഞ് കിടക്കുക അങ്ങനെ ഇപ്പം ഫുള്ള് ഇങ്ങനെ ഒരു കൂടുതൽ നനഞ്ഞ് കിടക്കുന്നിടത്താണ് എപ്പോഴും അ അസുഖങ്ങൾക്കുള്ള സാധ്യത കൂടുതൽ അപ്പം കൊതുക് വരാനും കൊതുക് അങ്ങനെ കൊതുകിനെയൊക്കെ കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുന്നത് വളരെ നല്ലതാണ് എവിടെയെങ്കിലും വെള്ളം കെട്ടി കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വീട്ടിന് ചുറ്റുപാടുമൊക്കെ നല്ല വൃത്തിയായിട്ടാണോ ഇരിക്കുന്നത് എന്തെങ്കിലും അസുഖം വരാനുള്ള സാധ്യത ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയൊക്കെ വേണം ഒരു നവജാത ശിശു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ